ആ ഇത് ഇത് പിന്നെ ഇത് ഫ്ലവർ ഷോപ്പ് ഫ്ലവർ ഷോ ഷോപ്പാണ് ഇത് ഞങ്ങളിവി ഇത് കോട്ടയം തിരുന്നക്കര തിരുന്നക്കരേലെ അമ്പലത്തിൻ്റെ അടുത്താണ് ഇവിടെ ഞങ്ങൾക്ക് മെയ്നായിട്ടുള്ളത് റോസാ ചെടിയുണ്ട് പിന്നെ മുല്ലപ്പൂ ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഏത് നാലഞ്ച് കളറുണ്ട് അത് ഏത് സ ടൈപ്പ് വേണേലും നിങ്ങളിവിടെ വരുമ്പളത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ട് വന്ന് കഴിയുമ്പൾത്തേക്ക് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ കളറ് വേണോന്നും ഏത് പറ ഏത് ടൈപ്പിലുള്ളത് ബേണോന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇതള് ഇതളായിട്ട് വേണമെങ്കിൽ ഇതള് അല്ലെങ്കിൽ മൊട്ടായിട്ട് വേണമെങ്കിൽ മൊട്ടായിട്ടും കൊടുക്കും അത് റേയ്റ്റ് മറ്റെ റോസാപ്പൂവിന് ഇരുന്നൂറ്റമ്പത് രൂപായും മറ്റെ മുല്ല മുല്ലപ്പൂവിന് നൂറ്റമ്പത് രൂപായും

നിങ്ങള് നേരിട്ട് കോണ്ടാക്ട് ചെയ്താലും ഓ ഓ ഞങ്ങള് നിങ്ങൾക്ക് വരാൻ സാധിക്കത്തില്ലെങ്കില് ഞങ്ങള് ഹോം ഡെലിവെറി ഞങ്ങക്കൊണ്ട് അപ്പം ഓ നിങ്ങള് പറയുന്ന ഓ അല്ല ഹോം ഡെലിവെറി ഹോം ചെയ്യുന്ന അതിന് ഒര് പിന്നെ ഡെലിവെറി ചാർജ് ഒര് ശകലം കൊടുക്കേണ്ടി വരും ഒരു കുഴപ്പവുമില്ല നിങ്ങള് പോ വരുമ്പോൾ വരുന്നതായിരിക്കും ബെറ്ററ് തിരുന്നക്കര തിരുന്നക്കര അമ്പലത്തിൻ്റെ അടുത്താണ്

അതെ കോട്ടയത്തെ തിരുന്നക്കര ആ സംഭവം അറിയാത്തവരാരുവില്ല എല്ലാർക്കും അറിയാം